ഞാൻ താമസിക്കുന്നത് തിരുനെല്ലിയാണ് തിരുനെല്ലിയെന്ന് പറഞ്ഞാൽ മലകൾ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം എന്നു പറയാം എന്താ പറയുക ബ്രഹ്മഗിരി ഹില്ലാണ് ഉള്ളത് അപ്പം ബ്രഹ്മഗിരി ഹിൽസിൽ പക്ഷി പാതാളം ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഒരിടമാണ് പക്ഷി പാതാളം ഒരുപാട് ഹിൽസുണ്ട് നമ്മൾ ബ്രഹ്മഗിരി ഹിൽസിൽ കൂടി പോകണമെങ്കിൽ ഇവിടെ കുറേ ഹിൽസുണ്ട് അതുപോലെ മണിമല പുത്തുമല കുന്നുമല അങ്ങനെയൊരുപാട് മലയുണ്ട് മലയെല്ലാം കടന്നു വേണം നമുക്ക് ബ്രഹ്മഗിരിയിലെത്താനും അവിടെ ഭയങ്കര എന്താ പറയുക സീനറി തന്നെ അടിപൊളിയാണ് മലയിൽനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഇതുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് എന്താ പറയുക ഗേഡ്സൊക്കെ ഉണ്ട് അപ്പം അവർ ആണ് നമ്മളെ അങ്ങോട്ടേയ്ക്ക് കൊണ്ടുപോവുക കൊണ്ടുപോവാൻ എന്ന് വച്ചു കയിഞ്ഞാൽ ട്രക്കിങ്ങായിട്ടാണ് കൊണ്ടുപോകൽ എന്താ പറയുക ബ്രഹ്മഗിരീൻ്റെ ടോപ്പിലെത്തും അവിടെ എന്താ പറയുക നല്ല രീതിയിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെയുണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് പക്ഷികളെയും എന്താ പറയുക നടക്കാനും എന്താ പറയുക അങ്ങനെയുള്ള ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്താ പറയുക ബ്രഹ്മഗിരി ഹിൽസ് എന്താ പറയുക നമ്മുടെ പക്ഷി പാതാളം അടിപൊളി ഒരു സ്പോട്ടാണ്